ഇരുപത്തി അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുപ്പത്തൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പത്ത് ആറ് രണ്ടായിരത്തി രണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി അഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന്